ഗ്രാമത്തിൽ വീട് പണിയുമ്പോൾ കാലാവസ്ഥയെ നോക്കിയാണ് നമ്മൾ വീട് പണിയേണ്ടത് ഭയങ്കര കാറ്റും മഴയും മഞ്ഞും ഒക്കെയവസ്ഥയാണ് അപ്പം അതിനകത്ത് പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥപോലെ നമുക്ക് തണുപ്പ് വരും പിന്നെ കാറ്റിനെയാണ് ഏറ്റവും കൂടുതലും പേടിക്കേണ്ടത് കാറ്റടിച്ചാൽ ഈ വീടുകൾ ഷീറ്റിട്ട വീട്ടിലൊക്കെ ഇരിക്കുന്നവർക്ക് ഭയങ്കര പേടിയാണ് ഏത് സമയത്താ മഴവെള്ളം ഒടിഞ്ഞുവീണ് ഷീറ്റ് പൊട്ടിപ്പോകുന്നത് അല്ലെങ്കിൽ പറപ്പിച്ചുകൊണ്ട് പോകുന്നത് എന്നൊരുപേടി ഉള്ള ഒരു അവസ്ഥയിലാണ് നമ്മുടെ കാലാവസ്ഥ അപ്പം അതനുസരിച്ച് നല്ല വാർക്ക് വീടുകളാണ് നമുക്ക് പ്രത്യേകിച്ച് പേടിക്കേണ്ട ഒരു അത്യാവശ്യം ഒരു കമ്പോ മരോ ഒക്കെ വന്ന് വീണാലും നമ്മൾ പേടിക്കേണ്ട നമ്മുടെ തലയിലേക്ക് വീഴില്ല എന്നൊരു ചിന്താഗതികൂടെ വരും ആ അതുപോലെയൊരു അവസ്ഥയാണ് നമുക്ക് പിന്നെ ഈ ഗ്രാമത്തിലെ വീടുകൾ പട്ടണത്തിലാണേ നല്ല നമുക്കൊന്നും നോക്കേണ്ട ഗ്രാമത്തിൽ വീട് പണിയുമ്പോൾ നമ്മൾ വീടിനാ അടുക്കള പുകയില്ലാത്ത അടുപ്പ് നോക്കണം കക്കൂസുകളൊക്കെ ബലവത്തായിരിക്കണം പിന്നെ വാസ്തു നോക്കുന്നത് നല്ലതാണ് വീടിന് ഏറ്റവും അത്യാവശ്യം വാസ്തുവാണെന്നാണ് എനിക്ക് പറയാനുള്ളത് വാസ്തു ഇൻ്റെ കണക്കുകളൊക്കെ ശരിയാകാത്ത വീട്ടിൽ കിടന്നാൽ ചിലപ്പോൾ സാമ്പത്തിക ഉയർച്ച ഉണ്ടാവത്തില്ല അല്ലെങ്കിൽ രോഗം ഒക്കെ മാറാതെ നിൽക്കും അങ്ങനെയൊക്കെ വരുന്ന ഒരു അവസ്ഥയിൽ വിജയം ഉണ്ടാകണമെങ്കിൽ വിജയം ഉണ്ടാകണേൽ നമ്മൾ വാസ്തു നോക്കിത്തന്നെവേണം വീട് വയ്ക്കാൻ ഇന്നൊക്കെ എല്ലാവരും വാസ്തു നോക്കിയാണ് വീട് പണിയുന്നത് നല്ലനല്ല വീടുകൾ വയ്ക്കുമ്പോഴ് വാസ്തു നോക്കാെതെ വയ്ക്കുന്ന വീടുകൾ വയ്ക്കുന്നവർക്ക് ഒരു ഗതി കിട്ടത്തില്ല എപ്പോഴും രോഗമായി സാമ്പത്തിക പരാജയമായി ഉയർച്ചയൊന്നും ഉണ്ടാവുന്നില്ല ഉയർച്ച ഉണ്ടാവണമെങ്കിൽ വീടിൻ്റെ വാസ്തു നോക്കി വയ്ക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് പല പിന്നെ വീട് ഹൈറേഞ്ചിലെ അല്ല ഗ്രാമത്തിലെ വീടുകൾ പലതരത്തിലുള്ളതാ ഇപ്പം ഗ്രാമത്തിലെ വീടുകളും വലിയ വലിയ വീടുകളാ വലിയ വലിയ കെട്ടിടങ്ങളായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു ഒരു നിലയും രണ്ട് നിലയും നാല് നിലയൊക്കെയായിട്ട് ആൾക്കാരുടെ പിന്നെ പുറത്തേയ്ക്കൊക്കെ ഒത്തിരിയാൾക്കാർ ജോലിക്ക് പോയിട്ടുണ്ടല്ലോ അവർക്ക് പൈസയൊക്കെയുണ്ടാക്കിക്കൊണ്ടുവരുന്ന ഗ്രാമത്തിലുള്ളവർക്കും പൈസക്ക് ബുദ്ധിമുട്ടില്ല എന്തെങ്കിലൊരു വീടിനൊരു കുട്ടി വെച്ച് വിദേശ രാജ്യങ്ങളിൽ ജോലിയുണ്ടവർക്ക് നന്നായിട്ട് പൈസയുണ്ടാവും അപ്പം അതനുസരിച്ച് അവരുടെ സാമ്പത്തിക നിലവാരം മെച്ചപ്പെടുന്നതിനനുസരിച്ച് നല്ല വീടുകൾ വെക്കും ഇപ്പം കാലാവസ്ഥയൊക്കെ നോക്കിയാണ് വയ്ക്കുന്നതുകൊണ്ട് ഇപ്പം അങ്ങനെ നല്ല വീടുകൾ വയ്ക്കുന്നതുകൊണ്ട് കാലാവസ്ഥ പ്രശ്നം ഇല്ല ഗ്രാമത്തിലെ വീടുകൾ പ്രത്യേകം മിക്ക സമയത്തും ഈ പിന്നെ കാറ്റും തണുപ്പുമാണ് മഞ്ഞും അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് വീട് പണിയുന്നത് അപ്പം അവർക്ക് നന്നായിട്ട് ജീവിക്കാനായിട്ടും അല്ലെങ്കിൽ വഴിസൈഡിലൊക്കെയാണെങ്കിൽ കുട്ടികൾക്ക് പോകാനും എല്ലാവർക്കും ബസ്സിനെയൊക്കെയാശ്രയിച്ച് റോഡിലേക്ക് വരാനുമൊക്കെ സൗകര്യം ഉള്ള രീതിയിൽത്തന്നെയാണ് വീട് പണിയേണ്ടത് അതാണ് അവരുടെ പിന്നെ നിലനിൽപ്പിന് അത്യാവശ്യം ആയിട്ടുള്ളത്